എൻ്റെ കോളേജിൽ ചിത്രരചനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേർസ് ഉണ്ട് ചിത്രരചനയെ മറ്റുള്ള വിനോദ പ്രവൃർത്തികളെ പോലെ തന്നെ നല്ലൊരു വിനോദമാക്കി മറ്റുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതിനുവേണ്ടി നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കോളേജിൽ നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു അതിൽ ചിത്രരചന കോമ്പറ്റീഷൻ ആയിരുന്നു ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്കും സെക്കൻഡ് കിട്ടുന്ന കുട്ടികൾക്കൊക്കെ സമ്മാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുകൂടാതെ നമ്മൾ നമ്മുടെ കോളേജിൽ കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമല്ല ഒരു ക്യാമ്പ് പോലെ നമ്മളൊരു കാര്യം നടത്തിയിരുന്നു കോളേജിലെ വൃക്ഷങ്ങളിലും അതുപോലെ തന്നെ മതിലിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നതിലൂടെ ചിത്രരചനയും നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതോടെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എത്തുകയും ചെയ്യും അപ്പോൾ ചിത്രരചനയെ ഒരു വിനോദവും ആക്കി എടുക്ക ആക്കി എടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്